പ്രാദേശികമായിട്ട് ഒരുപാട് ബേങ്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രാദേശികമായി നടക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അവര് പലരും നമ്മളെ സമീപിക്കാറുണ്ട് ഇന്ന് കാർഡുകൾ തരാം ഇന്ന് ലോണുകൾ തരാം ഇന്ന് പലിശയാണ് അല്ലെങ്കിൽ ഇന്നതാണ് തിരിച്ചടക്കേണ്ടത് എന്ന് പറഞ്ഞ് പലരും നമ്മളുടെ പല കാര്യത്തിനും നമ്മളെ സമീപിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മള് എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ ഒരാവശ്യം വരുമ്പോൾ അവരുടെ പേരുകൾ ഓർക്കാറും തീർച്ച അവരോട് സമീപിക്കാറും ഉണ്ട് ഇപ്പോൾ തന്നെ ഏറ്റവും കൂടുതലുള്ളതാണ് ബജാജ് എന്ന് പറയുന്നത് ബജാജിൻ്റെ കാർഡുകൾ പലരും എന്ത് ചെയ്യാറുണ്ട് വാങ്ങാറുണ്ട് കാരണം അതിലൂടെ നമുക്ക് പല സാധനങ്ങളും ഗഡുക്കളായിട്ട് വാങ്ങിയെടുക്കാൻ പറ്റും അത് ഏറ്റവും കൂടുതൽ പ്രാദേശികമായി സഹായിക്കുന്ന ഒന്നാണ് അവര് നമ്മൾക്ക് കാർഡുകൾ ഓഫർ ചെയ്യാറുണ്ട് അത് കൂടാതെ തന്നെ അതു കഴിഞ്ഞ് കുറച്ചു കഴിയുമ്പോൾ അവര് ലോണുകള് ഓഫർ ചെയ്യാൻ തുടങ്ങും അങ്ങനെ പലതും അവര് ഓഫർ ചെയ്യും നമ്മൾ ആദ്യം നിരസിക്കുമെങ്കിലും പിന്നീട് ഒരാവശ്യം വരുന്ന സമയത്ത് നമ്മൾ അവരെ തന്നെ സമീപിക്കും എന്നാൽ ഇതുപോലുള്ള പലതിലും പലിശ വളരെ കൂടുതലായിരിക്കും ചിലത് നമുക്ക് താങ്ങാത്തതായിരിക്കും എന്നാൽ നമ്മള് ആവശ്യങ്ങൾ കൂടുതലാണെങ്കിൽ നമ്മളത് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് സമീപിക്കാറുണ്ട് അവരെ